ഞാൻ സ്കൂളിൽ ചിത്രരചന എങ്ങനെയാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു ചിത്രരചനക്ക് ഒരു സാർ ഉണ്ടായിരുന്നു ഒരു മാഷ് ഉണ്ടായിരുന്നു ഒരു ഡ്രോയിങ്ങ് ബുക്കും പെൻസിൽസും ക്രയോൺസും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തുടക്കത്തില് നമ്മള് ചെറുതായിട്ട് വീടും അതുപോലെതന്നെ മരങ്ങൾ സൂര്യൻ അങ്ങനെ പലതുമാണ് വരച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും വരയ്ക്കാൻ അറിയും അല്ലെങ്കിൽ വരക്കാൻ എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല തുടങ്ങണത് നമ്മൾ വരച്ച് വരച്ച് ആകുമ്പോൾ അത് പിന്നീട് ഓരോ ചിത്രങ്ങളായി മാറുകയാണ് പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കണ സമയത്ത് ഞാൻ സയൻസ് സബ്ജക്ട് ആയിരുന്നു അപ്പോൾ ഞാൻ അത്യാവിശ്യം റെക്കോർഡിൽ ഒക്കെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു വരച്ചു കഴിയുമ്പോൾ അത്യാവശ്യം നന്നായി വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് അങ്ങനെ ചിത്രരചന കുഴപ്പമില്ലാണ്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നതാണ്